എന്നെ നല്ല ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രത്യേ ഒരു പ്രധാനപ്പെട്ട സാൻ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ഇല്ലായ്മയാണ് റേഞ്ച് ഇല്ലായ്മ അവിടെ ടവറുകൾ കമ്മി ആയത് കൊണ്ടു തന്നെ അവരുടെയൊക്കെ ഫോണുകളിൽ റേഞ്ച് കിട്ടാറില്ല കുട്ടികളുടെ ഓൺ ലൈൻ ക്ലാസ്സിലെ പഠന സമയത്തും അങ്ങനെ എല്ലാം ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് റേഞ്ച് ഇല്ലായ്മ ഇനി നല്ലൊരു മഴ സമയത്തൊന്നും മഴ ഇടി കാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ഒന്ന് നാട്ടിലെ ആർക്കും അങ്ങനെ റേഞ്ച് കിട്ടാറില്ല എൻ്റെ ഫോണിലെ റേഞ്ച് ഏകദേശം എനിക്ക് കിട്ടാവുന്നത് കൊണ്ടു തന്നെ ഞാൻ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ആർക്കെങ്കിലുമൊരു കോൾ ചെയ്യാനോ അല്ലെങ്കിൽ പ്രത്യേക ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ പോകാത്ത സമയത്ത് എൻ്റെ ഫോൺ ഞാൻ കൊടുത്തിട്ട് എൻ്റെ ഫോണിലെ ഹോട്ട് സ്പോട്ട് ഷെയർ ചെയ്തിട്ടാണെങ്കിലും വൈഫൈ ഷെയർ ചെയ്തിട്ടോ ഞാനങ്ങനെ അവരെ സഹായിക്കാറുണ്ട് പക്ഷെ എല്ലാ നാട്ടിലും അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഒരു നെറ്റില്ലായ്മ റേഞ്ചില്ലായ്മ അതിൽ നമ്മുടെ ഗവൺമെൻ്റ് ഇപ്പോൾ കെ ഫോൺ പദ്ധതി ഒക്കെ കൊണ്ട് വന്നു അതൊക്കെ വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കൊണ്ട് അങ്ങനെ ഒരു ഫോണിൻ്റെ റേഞ്ചില്ലായ്മ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാനിങ്ങനെ സഹായിക്കാൻ എല്ലാവരെയും ശ്രമിക്കാറുണ്ട്